എൻ്റെ രണ്ടാമത്തെ പ്രോഡക്റ്റ് എന്നു പറയുന്നതും ഒരു മൊബൈൽ ഫോൺ തന്നെയാണ് ഇതിനും ഒരുപാട് നെഗറ്റീവ് എക്സ്പീരിയൻസ് ആയിരുന്നു ഉണ്ടാരുന്നത് ഇത് ഒരു മൈക്രോമാക്സിൻ്റെ ഒരു മൊബൈൽ ഫോൺ ആയിരുന്നു എൻ്റെ ഈ രണ്ടാമത്തെ പ്രൊഡക്റ്റ് ഇതിൻ്റെ പ്രധാന നെഗറ്റീവ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൊസസ്സർ വളരെ സ്ലോ ആയിരുന്നു നമുക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് സ്ലോ ആയിട്ടാണ് ഫോൺ ഉണ്ടായിരുന്നത് അതുപോലെത്തന്നെ ഇതിൻ്റെ ക്യാമറ ക്യാമറ ഭയങ്കര മോശം തന്നെ ആണ് നല്ല ക്ലിയർ ഉള്ള ഫോട്ടോസ് ഇതിൽ നമുക്ക് എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല ഫോട്ടോസ് എല്ലാം വളരെ മോശമായ ഒന്നായിരുന്നു പിന്നെ അടുത്തൊരു പോരായ്മ എന്തെന്നു വെച്ചാൽ ഇതിൻ്റെ ബാറ്റ്റി ഇതിൻ്റെ ബാറ്റ്റി കപ്പാസിറ്റി വളരെ കുറവായിരുന്നു പെട്ടെന്ന് തന്നെ ചാർജ് പോകുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു അതുകൊണ്ടു തന്നെ ഇത് നമുക്ക് ഒരുപാട് നേരം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല അതും ഇതിൻ്റെ ഒരു നെഗറ്റീവ് ആണ് പിന്നെ ഉള്ളത് ഇതിൻ്റെ സ്പീക്കർ സ്പീക്കർ സൗണ്ടിൻ്റെ ക്ലാരിറ്റി എല്ലാം വളരെ മോശമായിരുന്നു സൗണ്ട് പൊതുവേ വളരെ കുറവായിരുന്നു അതുപോലെത്തന്നെ ഇതിൻ്റെ സ്പീക്കറിന് പലതരത്തിലുള്ള കംപ്ലെന്റ്സുകളും ഉണ്ടായിട്ടുണ്ട് പിന്നെ അതുപോലെ അടുത്തൊരു ഇതിൻ്റെ പോരായ്മ ഇതിൻ്റെ ടച്ച് ഇതിൻ്റെ ടച്ച് അത്ര മികച്ചതൊന്നുമായിരുന്നില്ല ഈ ഫോൺ വാങ്ങിച്ച ശേഷം ഇതിൻ്റെ ടച്ചിന് പല തരത്തിലുള്ള കംപ്ലൈന്റ് സ് ഉണ്ടായിട്ടുണ്ട് എനിക്കിത് വളരെ അധികം ഈ ഇതിൻ്റെ ടച്ച് ശരിയാക്കാൻ തന്നെ വളരെ ചിലവ് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടു തന്നെ ഇതിൻ്റെ ഇത് വളരെ അധികം ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് തന്ന ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു ഈ മൊബൈൽ ഫോൺ ഈ മൈക്രോമാക്സിൻ്റെ ഒരു മൊബൈൽ ഫോൺ